മതപരമായ സംസ്കാരങ്ങളിലും ആചാരങ്ങളിലും സാങ്കേതിക നവീകരണങ്ങള് ഉള്പ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കാരണം കോവിഡ് സമയത്ത് സാങ്കേതിക വിദ്യകളിലൂടെയുള്ള കല്യാണങ്ങളും അതുകൂടാതെ തന്നെ ഓണ്ലൈനായിട്ടുള്ള ജ്യോതിഷ കണ്സള്ട്ടേഷന്സും പിന്നെ ഓണ്ലൈന് ദര്ശനങ്ങള് അമ്പല ദര്ശനങ്ങള് അതുകൂടാതെ തന്നെ ഈ പൂജകള് ഓണ്ലൈന് വഴിയുള്ള പൂജകളും പിന്നെ ക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളെല്ലാം നമ്മള് ഓണ്ലൈന് വഴി ആക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ ഓണ്ലൈന് മാധ്യമങ്ങളിലേക്കുള്ള അമ്പലത്തിലേക്കുള്ള പൂജകളും അമ്പലത്തിലെ ദര്ശനങ്ങളുവെല്ലാം കൊണ്ടുവന്നത് ഓണ്ലൈന് ആക്കിയതോട് കൂടെത്തന്നെ നമ്മുടെ കൂടിവരുന്ന കോവിഡ് കേസുകളുടെ സമയത്ത് അമ്പലത്തിലേക്കുള്ള അല്ലെങ്കില് മതപരമായമായിട്ടുള്ള ആചാരങ്ങള് അല്ലെങ്കില് ആരാധനകള് സുരക്ഷിതമായി ഇപ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അമ്പലങ്ങളിലും പള്ളികളിലായാലും ഭക്തിഗാനങ്ങളെല്ലാം സ്പീക്കറ് വഴി മൈക്കിലൂടെയെല്ലാമാണ് വെയ്ക്കുന്നത് പിന്നെ ഇത് നല്കിയിട്ടുള്ള മികവെന്നത് പ്രായഭേദമന്യെ എല്ലാവര്ക്കും വീട്ടിലിരുന്നോ അല്ലെങ്കില് എവിടെയാണോ നമ്മളെവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണുകയും കേള്ക്കുകയും ചെയ്യാം